ഇത് ഏസിയുടെ ഒക്കെ ഷോറൂം അല്ലേ സർവീസിംഗ് സെന്റർ അതേ അല്ലേ അപ്പം നമ്മൾ രണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് നമ്മൾ അവിടെ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഒരു എ സി എടുത്തിരുന്നു അപ്പം അതിൻ്റെ സർവീസിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം നമുക്ക് അത് പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ പറ്റുമോ അതേ നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ കാളികാവ് ഭാഗത്താണ് അപ്പം നമുക്ക്

നമ്മൾ ഇപ്പോൾ നമ്മളുടെ അടുത്ത് നിലവിലുള്ള കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജിയുടെ മറ്റേ ആ ത്രീ സ്റ്റാറാണ് ഇപ്പം മറ്റേ ഫൈവ് സ്റ്റാറൊക്കെ ആയിട്ടില്ലേ ഉണ്ട് അല്ലേ അപ്പോൾ അ അതിനൊക്കെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ആണ് ആണല്ലേ ഇപ്പം നമുക്ക് ഒരു നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് റൂമുണ്ട് നമ്മളുടെ അടുത്ത് ഇപ്പോൾ നാല് റൂമിനും കൂടെ വരും അപ്പോൾ ഇപ്പം ഓഫറും കാര്യങ്ങളും എന്തേലും ഒക്കെ ഉണ്ടാകുമോ

അതേ അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ ടോട്ടൽ ഒക്കെ അതേ അപ്പം പെരുന്നാൾ ആകുന്നതിൻ്റെ മുൻപ് നമുക്ക് ഇപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് ഇട്ട് കൂടെ അപ്പോൾ നമുക്ക് നാല് എ സി ഇപ്പോൾ എത്രയാകും ടോട്ടൽ പ്രൈസ് എത്രയാകും ഒന്നര ലക്ഷം ഓക്കെ അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ആളെ വിടുകയില്ലെ സർവീസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആകുമല്ലോ അപ്പോൾ നമ്മളുടെ ഇപ്പം പഴയ എ സി പിന്നെ എന്താ ചെയ്യുക കമ്പനി എടുക്കുമോ അതേ അതേ അല്ലേ അപ്പം ഇനി ഇപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ഷോറൂമിലേക്ക് വരേണ്ടി വരുമോ അതോ നിങ്ങൾ ഡയറക്റ്റ് സാധനങ്ങള് എടുത്ത് തരുമോ ഞങ്ങൾ സാധനം നോക്കാൻ വരേണ്ടി വരുമോ

നിങ്ങളുടെ വാട്സ്ആപ്പിൽ സെൻഡ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ